ഹലോ ഫർസ ഹോട്ടൽ അല്ലേ എനിക്ക് ഒരു നാല് പൊറോട്ടയും ഒരു ചിക്കൻ കറിയും ആവശ്യമുണ്ടായിരുന്നു ഐക്ക് കൊറച്ച് ചമ്മന്തി പിന്നെ ഒരു ബീഫ് ഫ്രൈ നല്ല ചൂടുള്ള ബീഫ് ഫ്രൈ തന്നെ ആയിക്കോട്ടെ ടോട്ടൽ എത്ര വിലയാവും ഐക്ക് കുറച്ച് ചൂട് ചായ വേണ്ടീനേട്ടൊ നമുക്ക് ഫ്ളാസ്ക്കിൽ കൊണ്ടൊന്നാതി ഒരു അര മണിക്കൂർ കൊണ്ട് ആണല്ലെ വേണ്ട ഒരിരിവ മിനിറ്റ് കൊണ്ട് എത്തിക്കോട്ടെ ഇവിടെ കുറേ വിരുന്നുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പോണേൻ്റെ മുൻപ് സാധനം കിട്ടണം അല്ലെങ്കിൽ ഓഡറ് ക്യാൻസൽ ചെയ്യുന്നതാണ് അര മണിക്കൂർ കൊണ്ട് എത്തിയില്ലെങ്കിൽ സംഭവം ക്യാൻസൽ ആക്കുന്നതാണ്